എനിക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നമെന്നത് ജല മലിനീകരണം തന്നെയാണ് ഇപ്പം മത്സ്യബന്ധനത്തിലൂടെ അതുപോലെ മത്സ്യങ്ങളുടെ കുറവും നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ മത്സ്യങ്ങൾക്കൊക്കെ ഒരുപാട് വില കൂടി വരികയാണ് അതുപോലെത്തന്നെ മരുന്നുകളൊക്കെ അടിച്ച് പല എപ്പോൾ എപ്പോഴെങ്കിലുമുള്ള മത്സ്യങ്ങളെയൊക്കെയാണ് നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മത്സ്യബന്ധനം പാരിസ്ഥിതികമായും അതുപോലെ ജലമലിനീകരണമൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ജലമലിനീകരണം മൂലം ഉണ്ടാകുന്ന മാറ്റം എന്നുപറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാമല്ലോ ഇപ്പോൾ ഇപ്പോൾ കടലിലായിക്കോട്ടെ അതിൻ്റെ നിറമോ നിറത്തിലും അതുപോലെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പം സുനാമി ഭൂമികുലുക്കമൊക്കെ ഉണ്ടായിവരുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ കടലിൽ കടലിന് നല്ല പച്ച കളർ അതു പോലെ നീല കളറെന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈയിടെയായിട്ട് ഇപ്പോൾ ഈ ബീച്ചിലൊക്കെ നോക്കിയാൽ നമ്മൾ ബീച്ചൊക്കെ കാണാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണല്ലോ പോകുക എന്നാൽ അതിൽനിന്ന് വരുന്ന വെള്ളമൊക്കെ ഒരുപാട് ഇപ്പോൾ തിരമാലയെന്നു പറയുന്നത് തിരയിലേക്ക് അധികം അടിച്ചു കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെത്തന്നെ അതിൻ്റെ വെളളത്തിൻ്റെ കളറൊക്കെ മാറി ചെളിവെള്ളം പോലെയാണ് ഇപ്പോൾ ജെ ജെ കടലിലെ വെള്ളത്തിനു വെള്ളത്തിൻ്റെ കളർ പിന്നെ അതുപോലെത്തന്നെ ഒരുപാട് മാറ്റങ്ങൾ കടലിനായിക്കോട്ടെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് ക ഇപ്പോൾ കടൽ ഇങ്ങനെ കരയി അതിൻ്റെ തിരമാലയൊക്കെ അടിച്ചുകയറി തിരയിലേക്ക് അത് അതുപോലെ സുനാമി പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്